ഞങ്ങളുടെ പ്രദേശത്തുള്ള സഞ്ചാര കേന്ദ്രം എന്ന് പറയുന്നത് കുമരകം ആണ് കുമരകത്ത് ആണെങ്കിൽ ബോട്ടിങ്ങ് സൗകര്യം ഉണ്ട് ധാരാളം വിദേശികള് കുമരകത്ത് എത്തുന്നതുകൊണ്ട് ബോട്ടിങ്ങിനായും മറ്റു കാര്യങ്ങള്ക്കായും ഇവിടെ ഭക്ഷണം സീ ഫുഡ് ഐറ്റംസ് വളരെയേറെയുണ്ട് കരിമീന് പൊള്ളിച്ചത് കൂന്തല് അതുപോലുള്ള ഐറ്റംസ് ഉണ്ട് അതൊക്കെ ഇഷ്ടപ്പെട്ട് അതിനെക്കുറിച്ചൊക്കെ കേട്ട് അറിഞ്ഞ് വരുന്ന ഒരുപാട് വിദേശികള് കുമരകത്ത് നിന്ന് നമുക്ക് കാണാന് സാധിക്കും അതുപോലെ ഹൗസ് ബോട്ടിങ്ങ് സൗകര്യം ഉണ്ട് ഈ ഭക്ഷണങ്ങളൊക്കെ ഈ ഭക്ഷണങ്ങളോടൊക്കെ കൂടിയ ഹൗസ് ബോട്ടിങ്ങ് ഉണ്ട് അപ്പം നമുക്ക് അതിനുള്ള ഒരു തുക നല്കുകയാണെങ്കില് ഒരു ദിവസം അല്ലെങ്കില് ഇത്ര നിശ്ച്ചിത സമയത്തിനുള്ളിലൊക്കെ ആ ആ ഹൗസ് ബോട്ടില് യാത്ര ചെയ്യാന് സാധിക്കും അതുപോലെതന്നെ ആ കുമരകത്ത് ആ ഒരു പ്രദേശത്തു തന്നെ ധാരാളം റസ്റ്റോറൻ്റുകളുണ്ട് ഇത് പോലത്തെ ഭക്ഷണങ്ങള് ലഭിക്കുന്നതും ആയിട്ടുള്ള ധാരാളം റസ്റ്റോറൻ്റുകളും കാണാന് സാധിക്കും